എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക ഉദ്ദേശിക്കുന്നത് നല്ല മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ അതാവുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് നല്ല ചിന്ത ചിന്തകൾ പറഞ്ഞുകൊടുക്കുവാൻ നമ്മളാൽ കഴിവതും നമുക്ക് സാധിക്കും ജീവിതത്തിൽ വളരണമെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായ രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കണം അപ്പം പല മേഖലകളിലാണ് നമ്മൾ ചെന്നെത്തേണ്ടത് അതിന് അറിവിൻ്റെ മേഖലകളിലെ വാതായനങ്ങൾ നമ്മൾക്കായിട്ട് ഒത്തിരി തുറന്ന് കിടപ്പുണ്ട് അതിലൂടെ മാത്രമേ നമ്മൾ തുറന്ന ഒരു മനുഷ്യനായിട്ട് തീരുകയുളളൂ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ വായന ഒത്തിരി അത്യന്താപേക്ഷിതമാണ് മറ്റ് മനുഷ്യരെ അറിയുവാനും ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരു നല്ല പ്രചോദനം അല്ലേൽ മാതൃകയായി തീരണമെങ്കിലും നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം എൻ ധാരാളം പുസ്തകം വായിച്ചാൽ മാത്രമേ നമ്മൾ വളരൂ വായന നമ്മളെ നല്ല വക്താക്കളാക്കി മാറ്റും നമ്മൾക്ക് നമ്മൾ വായിക്കുന്നതിലൂടെ നമ്മൾ വളരുകയാണ് അതുപോലെ മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തി മറ്റുള്ളവർ കാണുമ്പോൾ അതും അവർക്കൊരു പ്രചോദനമായിട്ട് തീരുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ആധുനിക ലോകത്തിൽ പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് പ്രത്യേകിച്ച് വിശുദ്ധന്മാരുടെ ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് അവർ അവർക്ക് പ്രചോദനം ആയിത്തീർന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആക്കിത്തീർക്കുമ്പോൾ നമ്മളും ആ വിശുദ്ധിയിലേക്ക് വളരുവാൻ നമ്മൾ ശ്രമിക്കും പിന്നെ അറിവിൻ്റെ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് വളരണമെങ്കിൽ ശാസ്ത്രസാങ്കേതികവിദ്യകൾ അറിയുന്ന പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം അറിവിൻ്റെ മേഖലകളാണ് നമ്മളെ വളർത്തുന്നത് അറിഞ്ഞാൽ മാത്രമേ അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് നമ്മൾ അറിവായിട്ട് മാറുകയുള്ളു നമ്മൾ നമ്മളെ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് തിരിയാതെ നമ്മളിലൂടെ ആ അറിവ് മറ്റുള്ളവർക്ക് സമ്പാദിച്ചു കൊടുക്കുവാൻ നമ്മളാൽ കഴിവതും നമ്മൾ ശ്രമിക്കുകയാണ് അതായത് പുസ്തകങ്ങൾ എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അത്താണി ആയിട്ട് മാറണം ഇനിയും പറയുകയാണെങ്കിൽ ധാരാളം മേഖലകളുണ്ട് വായനവഴി വളർന്ന ധാരാളം ആൾ മഹാന്മാരെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ആയിട്ട് സാധിക്കും ഗാന്ധിജി ഗാന്ധിജി പോലും തൻ്റെ സത്യാന്വേഷണ ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നെഹ്റു നെഹ്റു ഏറ്റവും വലിയ ഒരു വക്താവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെയൊക്കെ വളർച്ച കൂടുതലും ഈ മാധ്യമങ്ങളിലൂടെ റീഡിങ്ങിലൂടെയൊക്കെ ആയിരുന്നു അത് അവരെയൊക്കെ മുന്നോട്ടു നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ വലിയ മഹത് വ്യക്തികളായിട്ട് വളരുവാനായിട്ട് സാധിക്കും അങ്ങനെ നല്ല നല്ല മതഗ്രന്ഥങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ ഈ ലോകജീവിതത്തിൻ്റെ പന്താവിൽ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു